എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നൂറ്റി അറുവത്തി ഒൻപത്